ചേട്ടാ ആ എനിക്ക് ഫ്രിഡ്ജ് വാഷിങ് മെഷീൻ എ സി പിന്നെ ഇൻഡക്ഷൻ കുക്കറ് ടി വി അങ്ങനെ കുറെ സാധനങ്ങള് നിങ്ങളുടെ കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്

എൽ ജി യുടെ മുപ്പത്തിരണ്ടിഞ്ചിൻ്റെ ടി വി യാണ് ഉദ്ദേശിക്കുന്നത് വാങ്ങിക്കാൻ ആ അപ്പോൾ അതിൻ്റെ ആ ആ ആ

ഇതേപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഡബ് ഡബിൾ ഡോറിൻ്റെ ഉവ്വാ എല്ലാം എൽ ജീ യുടെ തന്നെയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം നമുക്ക് സാധനങ്ങളും എൽ ജീ യുടെ കമ്പനിയിൽ നിന്ന് അ ആ ആ ഇത് എനിക്കിതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കാണിച്ച് തരാമോ ഫ്രിഡ്ജിൻ്റെ കളറ് ആ ആ ആ

ഇതും ഇതുമതുപോലെ എത്ര വർഷ ഗ്യാരന്റിയാണ്

ഓ രണ്ട് വർഷം ഓക്കെ ആ ആ പിന്നെ അതേപോലെ എന്താ പറയുക വാഷിംഗ് മിഷിൻ വേണം ഫുള്ളി ഓട്ടോമാറ്റിക്ക് തന്നേര്

ഇതിപ്പോൾ ഓപ്പ് ടോപ്പ് ഓപ്പൺ ഉള്ളതാണോ ഇത് ടോപ്പ് ഒപ്പണുള്ളതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണ് അത് ഈ പറഞ്ഞത് പോലെ എല്ലാത്തിനും ഗ്യാരന്റിന്നാ അപ്പോൾ നിങ്ങളീ അതെ അല്ലെ അല്ലാ ഈ എൽ ജീ കമ്പനിയുടെ തന്നെ എൽ ജീ കമ്പനിയുടെ തന്നെ ഫുൾ സാധനങ്ങളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ട് തരാൻ പറ്റുവോ രണ്ട് ശതമാനം അത്രയും ഉള്ളു അല്ലേ

അത്രയും ഉള്ളു ആ ആ ദെൻ ഞങ്ങള് പിന്നെ പ് ക്യാഷ് ആ ആ ക്യാഷ് നേരിട്ട് അടയ്ക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം മോ അതെ അല്ലെ അല്ല ചെക്കല്ല ഞങ്ങള് ക്യാഷ് നേരിട്ട് ബില്ല് പേ ചെയ്യാനാണ് ഉദ്ദേശം അപ്പോൾ ഇത് എല്ലാ എല്ലാം കൂടി എറൗണ്ട് ഒന്ന് എത്ര ആകുമെന്ന് പറഞ്ഞാൽ ഞങ്ങള് ക്യാഷ് ഞങ്ങള് ആ അത് തന്നെ അത് അത്രയും ഉള്ളു പക്ഷേ ഞങ്ങളിതെല്ലാം കൂടി അതെ അല്ലെ അല്ല എൻ്റെ കൈയ്യിലിപ്പോൾ ഓൾറെഡി ഒരു ലക്ഷം രൂപയേ ഉള്ളു അപ്പോൾ അതിനുള്ളിലൊക്കെ ആണെൽ ഒതുങ്ങുമല്ലേ ആ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഏം ആ സെലക്ട് ചെയ്തതിനു ശേഷം അതെ അല്ലെ ഓക്കെ അപ്പം ഞാൻ സെലക്ട് ചെയ് അ ആ ഇതിൻ്റെ അപ്പോൾ ട്രാൻസ്പോർട്ടിന് ഫീ വാങ്ങിക്കുവോ എക്സ്ട്രാ വേറെ അതെ അല്ലെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാനെല്ലാ സാധനങ്ങളും സെലെക്ട് ചെയ്യാം അതിന് ശേഷം ഓക്കെ അപ്പോൾ കുറച്ച് സമയമെടുക്കുമല്ലൊ ആ അപ്പം അതെ അല്ലെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഞങ്ങള് എന്നിട്ട് സെലക്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ബിൽ അടിപ്പിച്ചൊ അതെ അല്ലെ ഓക്കെ അപ്പോൾ ശരി ഞാനേ സെലക്ട് ചെയ്യട്ടെ ശരി